പതിനാല് അഞ്ച് രണ്ടായിരത്തി രണ്ട് പതിനാറ് ഏഴ് രണ്ടായിരത്തി മൂന്ന് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി നാല് പതിനാറ് ഏഴ് രണ്ടായിരത്തി അഞ്ച് പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന്